ഹലോ ആ ഇത് ആൻസ് ടൂർസ് ആൻഡ് ട്രാവൽസ് അല്ലേ ഞാൻ പുറത്തുനിന്ന് കേരളത്തിന് പുറത്ത് ഡൽഹിയിലാണ് താമസിക്കുന്നത് അപ്പം ഞാനൊരു ര ഒരാഴ്ചത്തെ വെക്കേഷന് വേണ്ടിയിട്ട് കേരളത്തിലേക്ക് വരുവായിരുന്നു അപ്പോൾ എനിക്ക് കൂടുതൽ ഇഷ്ടമുള്ളത് ചായ ടീ എവിടെയാണ് നല്ല പ്രൊഡക്ഷൻ ഉള്ള സ്ഥലങ്ങൾ എവിടെയാണ് ഉള്ളത് ആ നമുക്ക് ഓർഗാനിക് ആയിട്ടുള്ള ടീ എവിടെ ആയിരിക്കും കിട്ടുക

അതെയോ ടീക്ക് പല വെറൈറ്റി ടീ അവൈലബിൾ ആണോ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് അതെ അല്ലേ ഗ്രീൻ ടീ ഏ ഗ്രീൻ ടീ അവൈലബിൾ ആണോ അതിന് ഏതൊക്കെ വെറൈറ്റികൾ ഉണ്ട്

നമുക്ക് അത് ബൾക്ക് ആയിട്ട് മേടിച്ച് ഷോപ്പിലോട്ടൊക്കെ കൊണ്ടുപോവാൻ അങ്ങനെയൊക്കെ പറ്റുമോ അതെയോ ഇത് കൊച്ചിയിൽ നിന്ന് എത്ര ദൂരം ഉണ്ടായിരിക്കും നമുക്ക് അവിടെ വന്ന് കഴിഞ്ഞാൽ ട്രാൻസ്പ്പോർട്ട് വണ്ടി സൗകര്യം ഉണ്ടോ നമുക്ക് അങ്ങോട്ടേക്ക് പോവാൻ അതെയോ ആ ഈ സ്ഥലം ഒക്കെ കാണാനും ഒക്കെ ഉള്ള പെർമിഷൻ നമുക്ക് കിട്ടുമായിരിക്കുമല്ലോ അതെ അല്ലേ നമുക്കൊരു ദിവസം കോണ്ട് എത്ര ദിവസം എടുക്കും ഇതൊക്കെ കണ്ട് തീരാനായിട്ട് നമുക്ക് ഈ താമസ സൗകര്യം ഒക്കെ അറേഞ്ച് ചെയ്ത് തരാൻ പറ്റുമോ

ഓക്കെ ഓക്കെ ആ അങ്ങനെയാണെങ്കിൽ ഞാൻ പോരുന്ന തലേന്ന് വിളിക്കാം ഓക്കെ അപ്പം എ എക്സ്പെൻസ് ഒക്കെ എത്രയാണ് പൈസയും എത്രയാവും ആ ഓക്കെ ഓക്കെ ഏകദേശം ഒരു ഫൈവ് തൗസൻറെ ഉള്ളിൽ നിൽക്കുമോ ഓക്കെ ഓക്കെ എന്നാൽ ശരി അപ്പം ഞാൻ വരുമ്പോഴത്തേനും കാണാം ഓക്കെ എന്നാൽ താങ്ക് യു